എൻ്റെ അഭിമാനകരമായ നേട്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു എനിക്ക് ഒരു നേഴ്സ് ആവണമെന്നുള്ളത് എനിക്ക് ആദ്യമൊന്നും എനിക്ക് വലിയ ഇൻറ്ററെസ്റ്റ് ഒന്നും തോന്നിയില്ല വൺ പ്ലസ് ടു ഒക്കെ എനിക്ക് ഭയങ്കര മാർക്ക് കുറവൊക്കെയായിരുന്നു പിന്നെ പൈസ കൊടുത്താണ് ഞാൻ കയറിയത് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പിന്നീട് നേഴ്സ് ആവണം ആവണം എന്നുള്ളത് ആവണം അത് കഴിഞ്ഞ് ആയി കഴിഞ്ഞ് എൻ്റെ വീട്ടുകാരെ നോക്കണം എൻ്റെ ശമ്പളത്തിൽ അവരെ അവരെ ഞാൻ സംരക്ഷിക്കണം അങ്ങനെയൊക്കെ എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരെ ഇപ്പം നോക്കുന്നുണ്ട് എൻ്റെ സാലറി കൊണ്ടാണ് എൻ്റെ വീട്ടുകാര് കഴിഞ്ഞു പോകുന്നത് ഇപ്പം അതായത് എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒന്നും ഒരു കുറവും ഇല്ലാണ്ട് ഞാൻ അവരെ പൊന്നുപോലെ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത് ഇപ്പോൾ എനിക്ക് ഇവിടെ ഫുഡ് കാര്യങ്ങള് അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസ് ലൈക്ക് അങ്ങനെ എല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത് അപ്പോൾ എനിക്ക് അതിലൊക്കെ അതിൽ പരം എൻ്റെ നേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്കും അച്ഛൻ്റെയും ആഗ്രഹമായിരുന്നു ഞാൻ നഴ്സായി കാണണം എന്നുള്ളത് അവരുടെ അത്രയും വലിയ ആ ആഗ്രഹം ഞാൻ സാധിച്ച് കൊടുത്തു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ അഭിമാനകരമായ നേട്ടം എന്ന് പറയുന്നത്